ഹലോ മേഡം ഞാ ൻ ഇവിടെ കൊണ്ടോട്ടിയിൽ നിന്നാണ് അവിടെ നിലമ്പൂർ അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വരാനായിരുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് ആളുണ്ട് വരാൻ അപ്പോൾ അതിൻ്റെ വണ്ടി സൗകര്യം എങ്ങനെയാണ് വണ്ടി സൗകര്യം ഓക്കെ ഞങ്ങൾ കൊണ്ടോട്ടി വന്ന് നിലമ്പൂർ വന്നിട്ട് ട്രാവലർ എടുത്ത് പോവാനായിരുന്നു സ്ഥലങ്ങളൊക്കെ അറിയുന്ന ആളെ കിട്ടാൻ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ആ റിസോർട്ടുകളൊക്കെ ഉണ്ടോ ആ അവടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അപ്പോൾ

ഓക്കെ ഈ ട്രാവലറ് എസി ആണോ അതോ നോൺ എസി ആണോ ആ ഉണ്ട് കുട്ടികളൊക്കെയുണ്ട് ആ അപ്പോൾ ഓക്കെ ഞങ്ങൾ നാളെ എത്തും കേട്ടോ നാളെ സമയം ഒരു എട്ട് മണി ആകുമ്പോൾ എത്തും ആ അതെ അവിടെ വന്നിട്ട് ഇല്ല അതു മതി ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ എന്നാൽ ശരി ആ ശരി എന്നാൽ താങ്ക്